യാത്ര എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ജീവിതം തന്നെ ഒരു യാത്രയാണ് അതിൻ്റെടയിൽ യാത്ര ചെയ്യുക എന്നുള്ളത് ഈ ഭൂമിയിൽ ഈ ലോകത്തിൽ എല്ലാ സ്ഥലങ്ങളും ഒരാൾക്ക് കാണാൻ കഴിയണംന്നൊന്നുവില്ല പക്ഷേ കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണുകാ എന്നുള്ളത് വളരെ ഭംഗിയുള്ളതാണ് ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈയൊരു ആയുസ്സിൽ നമ്മുടെ ഭാരതത്തിലുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങൾലും കറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് യാത്ര ചെയ്യാമ്പോയിട്ടുണ്ട് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ബീഹാർ സൗത്ത് ഇന്ത്യയിൽ മൊത്തം കേരളം കർണാടക തമിഴ്നാട് ആന്ധ്ര ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ്ശ് ജമ്മു കാശ്മീർ ഡെല്ലി ഉത്തർകണ്ഡ് ബീഹാർ ഒറീസ്സ ഈ സംസ്ഥാനങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരെ എൻ്റെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് അവരെ അതിഥികൾന്ന് വേണമെങ്കിൽ പറയാം കുടുംബാഗങ്ങൾന്ന് പറയാം അങ്ങനെ സുഹൃത്തുക്കളെന്ന് പറയാം സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട് അപ്പം രണ്ട് തരത്തിലുള്ള യാത്രയാണ് ഒന്ന് നമ്മൾ ഒരേ ദിവസം പോയിവരുന്ന ഏകദിനം പിന്നെ കുറച്ച് ദൂരവുള്ളത് പിന്നെ കുറെ ദിവസങ്ങളെടുക്കുന്ന യാത്രകൾ ഇപ്പോൾ സാധാരണ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളടുത്തുള്ള യാത്രകൾലക്കെ ചെ ചെറിയ കുടുംബാഗങ്ങളോടൊപ്പാന്ന് പോകുന്നത് കുറച്ചുകൂടി ദൂരമുള്ള യാത്രയിൽ കുടുംബാഗങ്ങളുണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ ഫ്രെണ്ട്സ്സുണ്ടാവാം അതിഥികളുണ്ടാവാം ഏറ്റവും അവസാനം ചെയ്ത യാത്ര ജമ്മു കാശ്മീരിലേക്കാണ് ജമ്മു കാശ്മീരിലെ ശ്രീനഗർ കശ്മീർ ഏകദേശം നാൽപ്പത് വർഷത്തിലേറെ കാലമായി തീവ്രവാദ ഭീഷണിയക്കെ നേരിടുന്നൊരു സംസ്ഥാനമായിരുന്നു കാശ്മീരിപ്പോൾ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനോം സമാധാനമാണ് അവിടെ ഉള്ളത് കാശ്മീരികൾ നല്ല ഹാപ്പി ആയിട്ടാണ് ഉള്ളത് അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് സന്തോഷമാണ് കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ ആ കേന്ദ്രങ്ങളിലേക്ക് വന്ന് വരുന്ന സമയത്ത് അവർക്ക് ഹോട്ടലാണെങ്കിലും ഹോട്ടൽ ബിസിനസ്സാണെങ്കിൽ റൂംസ്സാണെങ്കിലും ഫുഡ്ഡാണെങ്കിലും ബാക്കിയെല്ലാ വില്പനയക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കച്ചോടം പൊടിപൊടിക്കുന്നുണ്ട് അതുകൊണ്ട് വരുമാനം ഇല്ലാത്ത അവർക്ക് അത് വളരെ ഹാപ്പിയാണവർ ജമ്മു കാശ്മീരിൽ കാലാവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവർക്കും എല്ലാ സമയത്തും പോവാൻ വേണ്ടി പറ്റില്ല നമ്മുടെ കേരളത്തിൽ താമസിക്കുന്നവർ ഒരു ഏകദേശമൊരു ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് ഡിഗ്രി സാധാരണ നമ്മുടെ കാലാവസ്ഥയാന്ന് പക്ഷേ അവിടെത്തീട്ടാകുമ്പോൾ ഏകദേശം കാലാവസ്ഥ കാലാവസ്ഥാന്ന് പറയുന്നത് ചില സമയത്ത് മൈനസ് ഡിഗ്രിയെല്ലാം ഉണ്ടാവുന്നുണ്ട് നമുക്കൊരു പത്ത് ഡിഗ്രി പന്ത്രണ്ട് ഡിഗ്രിയെല്ലാം ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് സഹിക്കാവ്വേണ്ടി പറ്റുന്നുണ്ട് അപ്പം ഞങ്ങൾ പോയത് ഏകദേശമൊരു ഏപ്രിൽ ഏപ്രിൽ മാസത്തിലാണ് പോയത് ഏപ്രിൽ പോയി നമ്മൾ അവിടെ പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നൊന്ന് ഒരു തുലിപ്പ് ഗാഡനുണ്ട് തുലിപ്പ് ഗാഡൻന്ന് പറഞ്ഞാൽ അത് ലോക പ്രസിദ്ധാന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ഒരു ഇരുവതാം തീയതിരെ ഇടയിൽ പത്തിരുപത് ദിവസം മാത്രമേ തുലിപ്പ് ഗാഡനിൽ ഫ്ലവേഴ്സെല്ലാം ഉണ്ടാവുന്ന അത്ര ഏക്കർ കണക്കിന് സ്ഥലത്തുണ്ട് ഈ സംഭവം കാണാനതിമനോഹരാന്ന് പിന്നെ കാണാനുള്ളത് ഗുൽമാർഗ്ഗ് ഗുൽമാർഗിൽ എന്ന് പറയുന്നത് ഈ ഇതാണ് റോപ്പ് കെട്ട് നേരത്തെ ഓൺലൈൻൽ ബുക്ക് ചെയ്യണം ആധാർ കാഡെല്ലാ കൊണ്ടു പോകണം അതിന് ഓരോരു സ്ഥലത്തേക്ക് ഓരോരു ചാർജ്ണ്ട് ഒന്നാമത്തെ റേഞ്ച് രണ്ടാമത്തെ റേഞ്ച് അങ്ങനെ ഓരോരു റേയ്ഞ്ചിണ്ട് ഓൺലൈനിലാന്ന് ബുക്ക് ചെയ്യേണ്ടത് സീസൺലെല്ലാം ബുക്കിങ് കിട്ടേച്ചില്ല പിന്നത്തേത് സോനാ മർഗ്ഗെറിഞ്ഞിട്ടുണ്ട് സോനാ മർഗ്ഗ് എല്ലാ ശ്രീനഗർന്ന് ഒരു രാവിലെ വിട്ടാലേകദേശം ഉച്ചയാകുമ്പോൾ അങ്ങെത്തുന്ന അത്ര ദൂരമുണ്ട് ഇലക്ട്രിക്ക് ബൈക്കിലാന്നീ സോനാ മർഗ്ഗിൽ മുകളിലേക്ക് കയറുന്നത് ഫുള്ള് ഐസിലന്നെ മഞ്ഞിലന്നെ കളിക്കാം ഫോട്ടോ എടുക്കാം മഞ്ഞിൽ കളിക്കാം മഞ്ഞുകൊണ്ട് പിന്നെ പ്രതിമകളെല്ലാം തൽക്കാലിക പ്രതിമകളെല്ലാം ഉണ്ടാക്കാം ഒരു പ്രത്യേക ലോകത്തേക്കെത്തിയ അനുഭൂതി ഫുള്ള് വൈറ്റ് കളറിൽ പിന്നെ ശ്രീനഗർല്ന്നെയുള്ള മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് ഡാൽ ലാക്കാന്ന് ഹൗസ് ബോട്ടിൽ വേണമെങ്കിൽ ഒരു ദിവസം താമസിക്കാം ഡാൽ ലാക്ക്ന്ന് പറയുന്നത് എത്രയോ ഏക്കറ് വ്യാപിച്ചു കിടക്കുന്നൊരു തടാകമാണ് ശുദ്ധജല തടാകം ഇന്ത്യയിലത്ര വലുത് വേറെയില്ല ലോകത്തിലന്നെ നിങ്ങൾക്കറിയാം ഏതായാലും വളരെ നല്ല ഒരു തടാകമാണ് ആ തടാകത്തിലെമോ യാത്ര ചെയ്യുന്ന സമയത്തന്നെ മറ്റ് ഹൗസ് ബോട്ട്കൾ വന്നിട്ട് ആൾക്കാർ ഫ്രൂട്സ്സ് വെജിറ്റബിൾസ്സ് ചായ കാപ്പി ഇങ്ങനുള്ള സാധനങ്ങളെല്ലാം വിൽപ്പന നടത്തുന്ന ഒരു ഷോപ്പിങ് ഈ തടാകത്തിലന്നെയുണ്ട് ഇഷ്ടം പോലെ അങ്ങനൊരു വെറൈറ്റി ഉണ്ട് ഫോട്ടോയെട്ക്കാം നല്ല ഡെക്കറേറ്റ് ചെയ്ത ബോട്ടാന്ന് എല്ലാം ഉള്ളത് പിന്നെ പെഹൽഗാം എന്ന് പറഞ്ഞൊരു ഒരു സ്ഥലമുണ്ട് അതും അങ്ങനെ കുറച്ച് ദൂരമാണ് പെഹൽഗാം പെഹൽഗാമിൽ കുതിരപ്പുറത്ത് യാത്ര ചെയ്യണം നല്ല ഒരു കയറ്റം കയറാനും പിന്നെ അവിടെ ഊട്ടി മിനി സ്വിറ്റ്സർലാൻഡ്ന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പിന്നെ സ്വിറ്റ്സർലാൻഡ് പോലത്തെ ഒരു സ്ഥലം അവിടുന്ന് തിരിച്ച് പിന്നെ കുതിരപ്പുറത്ത് കയറി ഇറക്കം ഇറങ്ങി തിരിച്ച് പെഹൽ ഗാമിലേക്ക് എത്താം അതാണ് പെഹൽ ഗാമ് അപ്പം സോന മാർഗ്ഗ് ഗുൽ മാർഗ്ഗ് പെഹൽ ഗാമ് ദാൻ ലാക്ക് പിന്നെ അവിടെത്തന്നൊര് ഹസ്രത്ത് പോൽ ദർഗ്ഗാണ്ട് അതുപോലെ തന്നെ ഒരു ശ്രീ ശങ്കരാചാര്യരുടെ മഠമുണ്ട് എത്രയോ വർഷം അഞ്ഞൂറ് ഇലേറെ വർഷത്തെ പഴക്കമുള്ളൊരു അമ്പലം എന്ന് പറയാം വളരെ പ്രാചീനായിട്ടെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞങ്ങനെ ആയിട്ടുണ്ടത് അപ്പോൾ അതക്കെ കാണുന്ന സമയത്തില്ലെ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് അവിടുത്തെ കാലാവസ്ഥ നമ്മളെ കൂടെ വന്ന അതിഥികളെല്ലാം നല്ല തൃപ്തിപ്പെടുന്നുണ്ട് ഭക്ഷണം ഹോട്ടലീന്നല്ല ഹോട്ടായിട്ടുള്ള ഭക്ഷണം കിട്ടുന്നുണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം എല്ലാ സൗകര്യങ്ങളുണ്ടാകുന്നുണ്ട് പിന്നെ ഫാൻ ഒന്നും ആവശ്യമില്ല ഏ സിയൊന്നും ആവശ്യമില്ല എല്ലാ റൂമും അത്രയും തണുപ്പുള്ളതാണ് എല്ലാ റൂമെല്ലാം അടയ്ക്കേണ്ടി വരുന്നുണ്ട് ചില ബെഡ്ഡിനെല്ലം ഇലക്ട്രിക്ക് പാനലുണ്ട് നമ്മൾ ബെഡ്ഡിൽ കിടന്ന് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൻ്റെ ബാക്ക് സൈഡ് ഫുള്ള് ഇലക്ട്രിക്ക് പാനല് ബെഡ്ഡിൻ്റടീയിലെല്ലാവുണ്ട് ഇങ്ങനെ ഹോട്ടാവും അപ്പോൾ ഇത്രയും തണുപ്പ് ഇത്രയും നല്ല തണുപ്പ്ന്ന് രക്ഷപ്പെടാൻ വേണ്ടീട്ടാണ് ഈ പാനലിങ്ങനെ കൊടുത്തിരിക്കുന്നത് അതൊക്കെ നമുക്ക് നല്ല എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഭൂമീലെ സ്വർഗ്ഗം എന്നാണ് ഈ കാശ്മീരിനെ പറയുന്നത് ജീവിതത്തിലൊരവസരം കിട്ടിയാൽ കാശ്മീരിലേക്ക് പോകണം അപ്പം അതിഥികളെ കൊണ്ടുപോവാൻ പറ്റിയ ഏറ്റോം നല്ല സ്ഥലങ്ങളിലൊന്നാണ് കാശ്മീർ അതുപോലെ പഞ്ചാബിൽ വാഗ ബോഡറുണ്ട് പിന്നെ കന്യാകുമാരി ഉണ്ട് നല്ല ത്രിവേണി സങ്കമ ഭൂമി അറബിക്കടൽ അതെ അല്ലെങ്കിൽ സിന്ദു സാഗരം ഇന്ത്യൻ മഹാസമുദ്രം ശാന്തസമുദ്രം ഈ മൂന്നെണ്ണത്തിൻ്റെ സംഘമാണ് ഭാരതാമ്പർ ഭാരതാമ്പരെടെ കാൽല് കഴുകുന്നത് എന്നാണ് പറയുന്നുള്ളത് അവിടാണ് സ്വാമി വിവേകാനന്ദ പാറയടക്കം സ്ഥിതി ചെയ്യുന്നത് ത്രിവേണി സങ്കമം കന്യാകുമാരീ ദേവി ക്ഷേത്രമുണ്ട് ശ്രീപാദ പാറയിലേക്ക് ബോട്ടിൽ സഞ്ചരിക്കാം എത്ര പ്രാവശ്യം പോയാലും മതിവരാത്തൊരു സ്ഥലമാണ് പിന്നെ തണുപ്പുള്ള സ്ഥലങ്ങൾ വേറെ കുറേയുണ്ട് ഊട്ടിയുണ്ട് കൊടൈക്കനാലുണ്ട് മൂന്നാറുണ്ട് ഇതക്കെ സഞ്ചാരികളെ കൊണ്ടോവാൻ പറ്റിയ സ്ഥലമാന്ന് കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കർണാടകയിലാണെങ്കിൽ ബേളൂറ് ഹളബേഡ് ഹർനാട് ശ്രീങ്കേരി മുരുടേശ്വര കൊല്ലൂര് ശ്രാവണ ഹൽഗോള ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മൈസൂർ ഏറ്റ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലാകർഷണമായ ഒരു കേന്ദ്രാന്ന് മൈസൂർ മൈസൂരിൽ വൃന്ദാവനമുണ്ട് കെ ആർ എസ് ഡാം കൃഷ്ണ രാജ സാഗർ ഡാം ഉണ്ട് പിന്നെ ശ്രീരങ്കപട്ടണമുണ്ട് അവിടെത്തന്നെ കുറെ സമ്മർ പാലസ്സ് അങ്ങനെ കുറെ സാധനങ്ങൾ കാണാനുണ്ട് മൈസൂരിലേറ്റവും നല്ലൊരു സൂ ഉണ്ട് അത് ഒരു ദിവസം മുഴുവൻ കാണാൻ തക്കതിനുള്ള സൂവൊണ്ട് പിന്നെ പാലസ് മൈസൂർ പാലസ് നമ്പർ വൺ ദസറയ്ക്കല്ല് പേര് കേട്ട സ്ഥലം അതുപോലെ മ്യൂസിയമുണ്ട് ചാമുണ്ഡി ഹില്ല് വൈകുന്നേരം ഒക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ട് നഗരത്തിനെ മുഴുവൻ കാണാം ഹില്ലിൻ്റെ മോളിൽ നിന്ന് നോക്കുമ്പോൾ താഴോട്ട് മുഴുവൻ കാണാൻ വേണ്ടി സാധിക്കും അതിമനോഹരമായ മൈസൂർ കാഴ്ച ഇപ്പം നല്ല റോഡായതു കൊണ്ട് മൈസൂർന്ന് ബാംഗ്ലൂരിലേക്ക് അടുത്താണ് വീഗാലാൻഡ്ഇൻ്റെ പാർക്കക്കെ അവിടെയുണ്ട് വാട്ടർ തീം പാർക്കൊക്കെ ബാംഗ്ലൂറ് മൈസൂർ ഹൈ വേല് ഇപ്പം സൗത്ത് ഇന്ത്യയിൽ ഏറ്റോം ഫേമസ്സ് കേന്ദ്രംന്ന് അതാന്ന് പിന്നെ ക്ഷേത്രങ്ങളൊരുപാടുണ്ട് തിരുപ്പതി അതുപോലെ തന്നെ തമിഴ്നാട്ടിലാണെങ്കിൽ കാഞ്ചീപുരം മഹാബെലിപുരം കന്യാകുമാരി അടക്കം രാമേശ്വരം രാമേശ്വരത്തിലെ ട്രെയിനക്കെ പോകുന്ന കാണണം വലിയ പാമ്പൻ പാലമുണ്ട് അതൊക്കെ ജീവിതത്തിൽ കാണണം അങ്ങനെ ഓരോ സ്റ്റേറ്റിൽ ഇപ്പം ഗുജറാത്തിൽ പോയാൽ പിന്നെ നർമ്മദാ നദിയും അതുപോലെ തന്നെ സർദാർ പട്ടേലിൻ്റെ പ്രതിമ ഗുജറാത്തിൽ ഗിർവനങ്ങൾ സബർമതി ആശ്രമം രാജസ്ഥാനിൽ ജയ്പൂര് പിങ്ക് സിറ്റി ഡെല്ലീലൊരുപാടുണ്ട് അക്ഷർഡാമുണ്ട് ഗുജറാത്തിലൂവൊണ്ട് അക്ഷർ ഡാമ് അതുപോലെ പിന്നെ ഇന്ത്യാ ഗേറ്റ് മുമ്പൈലാണങ്കിൽ താജ് ഹോട്ടല് അജന്ത എല്ലോറ ഗുഹകൾ ഹിമാചൽ പ്രദേശിലാണെങ്കിലേറ്റോം ആകർഷണിയമായിട്ടുള്ളത് കുളൂ മണാലി ഉത്തർപ്പെദേശിലായാൽ ഇപ്പോൾ ഏറ്റോം ലേയറ്റെസ്റ്റായിട്ടുള്ള അയോദ്ധ്യ കാശി അല്ലെങ്കിൽ വാരണാസി കാശീലന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് സങ്കടമോചനമുണ്ട് ബിർള മന്ദിറുണ്ട് പിന്നെ അയ്യപ്പ സ്വാമി ക്ഷേത്രമുണ്ട് കാശി വിശ്വനാഥ മന്ദിരവുണ്ട് വിശാലാക്ഷി ക്ഷേത്രമുണ്ട് അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളുണ്ട് അവിടെത്തന്നെ അടുത്താണ് ബുദ്ധ വിഹാരങ്ങളുള്ള സാരാനാഥ് പിന്നെ ബീഹാറിലേക്ക് പോയിക്കഴിഞ്ഞാൽ ഗയാണ്ട് വിഷ്ണു പാത ക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ ബുദ്ധഗയ ലോകത്തിലന്നെ പ്രസിദ്ധമായ ബുദ്ധ മതക്കാരൊക്കെ വരുന്നൊരു ഏറ്റോം പ്രധാനപ്പെട്ട ബുദ്ധനും ബോധി പുരുഷ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ബുദ്ധ ബുദ്ധമത ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റോം വലിയ തീർത്ഥാടന കേന്ദ്രം അത് ബുദ്ധ ഗയാന്നും പറയും ബോധഗയാന്നും പറയും വലിയൊരു ടൂറിസ്റ്റ് സെൻ്ററാണത് ബിഹാറിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ചാർഘണ്ഡിലും ചത്തീസ്ഘണ്ടിലും ഒക്കെ ഉണ്ട് മദ്ധ്യപ്രാദേശിൽ ഗ്വാളിയാറ് ഗ്വാളിയാറിൽ തകർക്കപ്പെടാത്തൊരു പാലസ്സ്ണ്ട് രാജ മാൻസിങ് കൊട്ടാരം അങ്ങനെ പലതുമുണ്ട് അപ്പം ഇവിടത്തേക്കൊക്കെ ഞാൻ നമ്മുടെ അതിഥികളായിട്ടുള്ള പലരേയും കൊണ്ടുപോവാൻ വേണ്ടീട്ട് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ്